സാർ ഇത് ഗവർണ്മെന്റ് ഓഫീസല്ലേ ഷോറൂം

അപ്പം നമ്മൾക്ക് ഫ്രഷ് സാധനങ്ങളൊന്നും ആവശ്യമില്ല നമുക്ക് നമ്മുടെ പേഴ്സണൽ യുസേജിന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ഹാൻഡോ

സ്പ്ലൻഡർ അങ്ങനെ ടൈപ്പ് ഉണ്ടാകുമോ നമുക്ക് വലിയൊരു ലോ ബഡ്ജറ്റ് മതി വലിയൊരു ഇതൊന്നും വേണ്ട കാരണം നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് പേഴ്സണൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനല്ലേ

സ്പ്ലൻഡർ ലോ ബഡ്ജറ്റ് അല്ല അല്ലേ അപ്പോൾ വേറെ ഏതൊക്കെ കമ്പനിയുടെ അപ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും

യമഹായുടെ ഏതാണ് നമ്മൾക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റിയ എക്സാക്റ്റ് ആ മോഡൽ ആണോ ഏ ആർ എക്സ് ഉണ്ടല്ലേ ആർ എക്സിൻ്റെ റേറ്റ് എത്രയാണ് വരുന്നത് ലാസ്റ്റ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഷോറൂമിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഇപ്പം എവിടെയാണ് വരുന്നത് കറക്ട് ആയിട്ട് പെരിന്തൽമണ്ണ ഓക്കെ പെരിന്തൽമണ്ണ ഇപ്പം നമുക്ക് വലിയ ലോങ്ങും കാര്യങ്ങളൊന്നും വരില്ല നമ്മൾ ഇപ്പം മണ്ണാർക്കാട് കാളി ആ സൈഡാണ് വരുന്നത് അപ്പോൾ നാളെ ഷോറൂം ഓപ്പൺ ആകില്ലെ അപ്പോൾ എത്ര മണിക്കാണ് നിങ്ങൾ ഓപ്പൺ ആകുക കട അതെ അല്ലേ അപ്പോൾ നമുക്ക് ആ വണ്ടി ഒന്ന് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിയാൻ പറ്റുകയില്ലേ ആ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ നാളെ വരാം നമുക്ക് നാളെ തന്നെ സാധാനം കിട്ടുമോ ഓക്കെ താങ്ക്യൂ